ഇന്ത്യൻ സമൂഹം എന്ന് പറഞ്ഞാൽ നാനാ ജാതി മതസ്ഥർ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഒരു ഒരു സംസ്ഥാനത്ത് തന്നെ പല തരത്തിൽ സംസ്ഥാനം വിട്ട് സംസ്ഥാനം കഴിഞ്ഞ് ജില്ല വരുമ്പോൾ തന്നെ ജില്ലയിൽ പല സ്ഥലങ്ങൾ വരുമ്പോൾ തന്നെ ആ സ്ഥലങ്ങളിൽ തന്നെ വിവിധ തരം മതങ്ങൾ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ പൊതുവെ ഹിന്ദു രാജ്യം എന്ന് അറിയപ്പെടുന്നു പക്ഷെ അത് അതിൽ പല പല ജാതികൾ ഉണ്ടെന്നുള്ളതാണ് സത്യം പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ജാതി മതം എന്നൊന്നും നോക്കാതെ മനുഷ്യരായി ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൽ മുഖ്യമായിട്ടുള്ളത് പണ്ടത്തെ കാലത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ജാതിയിൽ പല പല വ്യത്യസ്തതകൾ പുലർത്തുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വളരെ അധികം വ്യത്യസ്തത ഇപ്പോൾ നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ തന്നെ കുറഞ്ഞ ജാതി എന്നോ കൂടിയ ജാതി എന്നോ ഒരു വേർതിരിവില്ലാതെ പല മേഖലകളിലും തൊഴിൽ മേഖലകളും വിദ്യാഭ്യാസ മേഖലകളിലും പല പല കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലകളിൽ ആണെങ്കിൽ തന്നെ ഈ ച് ഈ താഴ്ന്ന ജാതി എന്ന് കരുതുന്നവ കരുതുന്നവർക്ക് പ്രത്യേകം ആനുകൂല്യങ്ങൾ അതായത് അവരെ ഒരു തരത്തിലും തരം താഴ്ത്തുന്നില്ല എന്ന് നാം അതായത് സമൂഹത്തിൽ അവരും വരേണ്ടവരാണ് അവരും സമൂഹത്തിൽ നിലനിൽക്കേണ്ടവരാണ് എന്ന് ഉള്ളതിനുള്ള തെളിവാണ് വിദ്യാഭ്യാസത്തിൽ ആണെങ്കിലും ജോലിയിൽ ആണെങ്കിലും അവർക്ക് പ്രത്യേക പരിഗണന നൽകി അവരെ മുൻ മുൻപന്തിയിലേക്ക് കൊണ്ട് വരാറുണ്ട് അത് വളരെ നല്ലയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെയാകുമ്പോൾ മതം എന്ന് അതായത് മനുഷ്യരെ പണ്ട് കാലത്ത് അടിച്ച് അമർത്തപ്പെട്ട ഒരു ഘടന ഇനിയും ഭാവി തലമുറക്ക് ഇല്ലാതാകാൻ വേണ്ടി ഉള്ള ഒരു സമ്പ്രദായം ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് എന്നിരുന്നാലും ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഈ ജാതിപ്പേർ വെച്ചുള്ള അതായത് ജാതി വർണ്ണന വെച്ചുള്ള ഒത്തിരി മാറ്റങ്ങൾ പഴയ കാലത്തിൽ നിന്നും ഈ കാലത്തിൽ വന്ന് ചേർന്നിട്ടുണ്ട് അതായത് എല്ലാവർക്കും തുല്യ സ്ഥാനം ഇന്ന ജാതിയെന്നോ കൂടിയ ജാതിയെന്നോ കുറഞ്ഞ ജാതിയെന്നോ ഇല്ലാതെ എല്ലാർക്കും തുല്യ സ്ഥാനം നൽകുന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ട് വരുന്നുണ്ട് അത് വളരെ നല്ലയൊരു കാര്യമാണ് കാണപ്പെടുന്നത് അതായത് ഇപ്പോൾ നമ്മുടെ ക നമ്മുടെ ഇവിടെ ഒരു ജോലിയിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ കൂടിയ ജാതിയിൽ ഉള്ളവർക്ക് മാത്രം എന്നല്ല കൊ കു എല്ലാവർക്കും പ്രവേശിക്കാം പക്ഷെ എന്നാലും നമ്മൾ കുറഞ്ഞ എ കുറഞ്ഞ ജാതി എന്ന് നമ്മൾ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം ആൾക്കാരെ അവർക്ക് പ്രത്യേക പരിഗണന നൽകി അവരെ മുൻപന്തിയിൽ എത്തിക്കാൻ ഉള്ള ശ്രമങ്ങൾ ഒത്തിരി ഒത്തിരി ശ്രമങ്ങൾ നമ്മുടെ ഈ ഭരണഘടനയിൽ ഇപ്പോൾ നടപ്പാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഭാവി തലമുറക്കാണെങ്കിലും അത് വളരെ നല്ല ഉപകാരപ്രദം ആകുമെന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ എല്ലാവരും തുല്യരാണ് ആരും ആർക്കും മുകളിൽ അല്ല എന്നൊരു സത്യം നമ്മൾ എന്നും നമ്മുടെ മനസ്സിൽ കരുതി വേണം നമ്മൾ എന്നും ജീവിക്കാൻ